വിദ്യാർഥികൾക്ക് സ്കോളർഷിപ്പുകളുണ്ട് ഒന്നു മുതൽ അല്ലങ്കിൽ അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ വിദ്യാർഥികൾക്കും ഓരോ കാറ്റഗറിയിലുള്ള സ്കോളർഷിപ്പുകൾ ലഭിക്കും അത് ഓരോ ഇന്നത്തെ ഇന്നത്തെക്കാലത്ത് അതൊരു കാസ്റ്റ് ബേസാണ് ഒസ് എസ്സി എസ്റ്റി ഒ ബി സി ഒ ഈ സി കാറ്റഗറീസിൽ എല്ലാമുണ്ട് ഞാനൊരു ഒ ബി സി കാറ്റഗറിയിൽപ്പെടുന്ന ഒരാളായത് കൊണ്ട് തന്നെ എല്ലാ വർഷവും എനിക്ക് തൊള്ളായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ കേറീട്ടുണ്ടായിരുന്നു പ്ലസ് ടുവൊക്കെ കാലം വരെ അതുകൊണ്ട് തന്നെ അതൊരു തൊള്ളായിരം രൂപ ആയത് കൊണ്ട് തന്നെ സ്കോളർഷിപ്പ്കള് ഉണ്ട് അതു പക്ഷെ വലിയ ഉപകാരപ്പെടാനൊന്നും ഒരു വർഷത്തെ ഒ ഒന്നും ആവില്ല എന്നാലും ഒരു സ്കോളർഷിപ്പിലെണ്ട് പിന്നെ എസ്സി എസ്റ്റി കാറ്റഗറിയിലുള്ളവർക്ക് നല്ല സ്കോളർഷിപ്പുകള് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാനൊരു എം ബി എ സ്റ്റുഡൻറ് ആണ് എം ബി എ സ്റ്റുഡന്റായ എനിക്ക് ഇന്ന് ഞാനെൻ്റെ സ്കോളർഷിപ്പ് എനിക്ക് കിട്ടുന്നത് ഒരു ഇ എ കെ സ്കോളർഷിപ്പാണ് ഇ എ കെ സ്കോളർഷിപ്പ് എനിക്ക് ഇരുപത്തയ്യായിരം രൂപ വരെ കയറുന്നുണ്ട് അതെൻ്റെ പഠനത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്നൊരു സ്കോളർഷിപ്പ് തന്നെയാണ് പക്ഷെ അത് എല്ലാവർക്കും അറിയില്ല എന്നതാണ് കാരണം ഇത് എന്റൊരു ഫ്രണ്ട് വഴി ഞാനറിഞ്ഞ ഒരു കാര്യമാണ് അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്കൊരു സ്കോളർഷിപ്പ് ലഭിച്ചു ഇരുപത്തയ്യായിരം രൂപ ഒരു വർഷം കിട്ടുന്നുണ്ട് അതെൻ്റെ രണ്ട് വർഷത്തെ പഠനകാലത്തും എനിക്കും ലഭിക്കുന്നതാണ് അതെൻ്റെ പഠനത്തിന് ഏറ്റവും മികച്ചതായിട്ട് എന്നെ തന്നെ ബാധിക്കും അതിന് ശേഷം പെൺകുട്ടികൾക്ക് പ്രത്യേക തരത്തിലുള്ള കുറെ സ്കോളർഷിപ്പുണ്ട് പിന്നെ മ റിലിജിയൻ ബേസ് മുസ്ലിംസിനു വേ വേറെ ക്രിസ്ത്യൻസിന് വേറെ അങ്ങനെ ഒരുപാട് സ്കോളർഷിപ്പുകൾ ഇന്ന് അവൈലബിൾ ആണ്